ഹലോ മിസ് പറയൂ മഗതി ടെക്സ്റ്റൈൽസ് ആണ് ആ പറയൂ മേഡം ആ അതെ മേഡം പറഞ്ഞോളൂ ആ നല്ല നല്ല മോഡൽ വന്നിട്ടുണ്ട് മേഡം ആ ബെൻ ബനാറസിലും ഒരു രണ്ട് അഞ്ഞൂറ് മുതൽ മോളിലോട്ടേക്ക് എത്ര ഏത് ക്വാളിറ്റീൻ്റെ വേണമെങ്കിലും ഉണ്ട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ചുരിദാറിൻ്റെ സാരീസ് എല്ലാം വന്നിട്ടുണ്ട് മേഡത്തിന് വന്നാൽ മേഡത്തിന് ഈട അടുത്ത് തന്നെയാണെങ്കിൽ വന്നാൽ നമ്മൾ കാണിക്കാം എല്ലാം ഏത് ടൈപ്പിൻ്റെ വേണമെങ്കിലും നമ്മൾ കാണിക്കാം പിന്നെ നല്ല നിങ്ങൾ ബൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓ എത്ര വേണം ആണോ ആ ആണെങ്കിൽ ഞാൻ മൊബൈലിൽ ഞാൻ എൻ്റെ ഡിസൈൻ എല്ലാം അയച്ച് തരാം മേഡത്തിന് ഏത് ഡിസൈൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്റ്റ് ചെയ്താൽ

അതെയോ ഒരേ ടൈപ്പിൻ്റെ സാരിയാണോ മേഡം അല്ലാ ആ ടൈപ്പിൻ്റെ തന്നെ വെറൈറ്റി വെറൈറ്റി ഡിസൈനിലുള്ള കളർ വെറൈറ്റി ആയിട്ടുള്ളത് വേണ്ടത് ആ കളർ മാത്രം ചേഞ്ച് ആയിട്ടാണോ ഓക്കെ ഓക്കെ ഇപ്പം വന്ന സ്റ്റോക്ക് ആണ് മേഡം നല്ല എത്ര മേഡം പീസ് എത്ര പീസ് ആണ് വേണ്ടത് നോക്കിയേ പത്ത് പീസ് ആണോ മേഡം ഓക്കെ ഓക്കെ പ്രശ്നമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പം ഫംഗ്ഷൻ എപ്പോൾ അടുത്ത ആഴ്ചയിലാണോ ആ പത്ത് പീസ് എന്തായെങ്കിലും ഉണ്ടാവും കൂടുതൽ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ തരേണ്ടി വരും ഞാൻ ഡിസൈൻ അയച്ച് തരാം അതല്ല പത്ത് പീസ് ആണെങ്കിലും ഞങ്ങളുടെ അടുത്തുണ്ട് ഇപ്പോൾ വന്നതുണ്ട് പത്ത് പീസ് ആണെങ്കിൽ ആ വെ വേറെ വേറെ വേറെയായിട്ട് കളർ ഉണ്ട് എന്ത് വെച്ചാൽ ഒരു ഒരു രണ്ട് ഈരണ്ടായിട്ട് ഈരണ്ട് വീതമായിട്ട് ഒരു കളറിൻ്റെ പ്രശ്നമില്ല അല്ലേ ആ അത് ചെയ്യാം മേഡം നിങ്ങൾ ഓർഡർ ചെയ്തോളൂ അത് ചെയ്യാം നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്കൗണ്ടിന് വേണ്ട ഏർപ്പാട് ചെയ്യാം നിങ്ങൾ ബൾക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും ഡിസ്കൗണ്ട് ചെയ്യാം പിന്നെ കമ്പനി ഇതായത് കൊണ്ട് വലിയ ഡിസ്കൗണ്ട് ആവില്ല എന്നാലും മാക്സിമം നമ്മൾ ചെയ്യാം നമ്മള പരമാവധി ചെയ്യാം ആ തരാം തരാം പിന്നെ നല്ല സാധനം ആവുമ്പോൾ ഡിസ്കൗണ്ട് അത്ര കിട്ടില്ല മേഡം എന്നെങ്കിലും ഓക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ഇതെന്തായാലും ചെയ് ചെയ്യാം ചെയ്യാം ആ പിന്നെ വേറൊന്നും വേണ്ട മേഡം ഓക്കെ ആ ഓക്കെ എന്നാൽ ഞാൻ കോൺടാക്ട് തരാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ